എൻ്റെ ബൈക്കിൽ ഞാൻ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചില പാതകൾ വഴി പോയിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് പറയണമെങ്കിൽ കുറച്ച് ഒരുപാടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബുള്ളെറ്റാണ് റോയൽ എൻഫീൽഡ് മുന്നൂറ്റൻപത് സി സി ആ ബൈക്ക് വെച്ച് ഞാൻ ഒരു ലോങ്ങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും കാശ്മീർ വരെ പോവുകയായ ആയിരുന്നു എൻ്റെ ഒരു പ്ലാൻ അങ്ങനെ ആ കാശ്മീർ പോകുന്ന വഴിക്കു പലയിടങ്ങളിലും ദുർഘടമായ അനുഭവമാണ് എനിക്കുണ്ടായത് ഓരോരോ ചെക്ക് പോസ്റ്റുകൾ താണ്ടി ഞാൻ പോയി അവിടെ വെച്ച് എൻ്റെ വണ്ടി പഞ്ചറായി ചില സ്ഥലങ്ങളിൽ വെച്ച് വണ്ടിക്ക് ആക്സിഡൻറ്റുണ്ടായി ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി കയ്യിലും കാലുകളിലും എനിക്കു മുറിവുണ്ടായി ഇതൊക്കെ എനിക്ക് ഏറ്റവും ദുർഘടമായൊരു അനുഭവമായിരുന്നു പക്ഷെ ഞാൻ ഇതിലൊന്നും തകർന്നില്ല ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനായ കാശ്മീരിൽ എത്തി അവിടെ എത്തിയപ്പോൾ എനിക്ക് വളരെ ദുർഘടമായി തോന്നിയത് അവിടുത്തെ തണുപ്പും എൻ്റെ വണ്ടിയുടെ അവസ്ഥയും ആ തണു തണുപ്പിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഇടക്കിടക്ക് അത് ഓഫാകുമായിരുന്നു അങ്ങനെ പെട്രോളിൻ്റെ ലഭ്യതക്കുറവ് ചില പാതകൾ നല്ലരീതിയിലവർ പണിതിട്ടില്ല ഏറ്റവും ഏറ്റവുമധികം കഷ്ടപ്പെട്ട് ദുർഘടമായി ഞാൻ യാത്ര ചെയ്തത് തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെയുള്ള എൻ്റെ എൻ്റെ ഒരു ജീവിത ആഗ്രഹമായിരുന്ന ഒരു എൻ്റെ ഒരു യാത്രയായിരുന്നു എൻ്റെ ബൈക്ക് യാത്രയായിരുന്നു ഞാൻ ഇതാണെനിക്ക് പറയാൻ ഉണ്ടായിരുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചില പാതകൾ അല്ലെങ്കിൽ വഴികൾ ഇതൊക്കെയാണ്